മൃഗങ്ങളെ പരിപാലിക്കാൻ എന്നൊക്കെ പറഞുകഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് ആദ്യം വേണ്ടത് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ അതിന് കറക്റ്റ് ടൈമിൽ പുല്ല് കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം പിന്നെ അതിന് നല്ലൊരു രീതിയിലുള്ളൊരു ആലയും കാര്യങ്ങളൊക്കെ നിർമിച്ചുകൊടുക്കണം കറക്റ്റ് ടൈമിൽ വെള്ളം കൊടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പുല്ലെന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടായിക്കോളണം എന്നില്ല ഇപ്പം നമ്മളിപ്പോൾ പുല്ല് വെച്ചുപിടിപ്പിക്കാത്ത ഒരാളാണെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഇപ്പോൾ ആരെങ്കിലും പറമ്പിൽ പോയിട്ട് വെട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം കൂടുതലായിട്ടും നമ്മൾ അത് തീർന്നുകഴിഞ്ഞുകഴിഞ്ഞാൽ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പം നൽ എന്താണ് പറയുക പുല്ല് നമ്മൾ എപ്പോഴും സ്റ്റോക്ക് കരുതണം അതായത് ഇപ്പം നമ്മുടെ പറമ്പിൽ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഈ പുല്ല് വെച്ചുപിടിപ്പിക്കാൻ പറ്റുന്ന പുല്ലുകൾ കാര്യങ്ങളൊക്കെയുണ്ട് അത് നല്ല രീതിയിൽ വെച്ചുപിടിപ്പിച്ചുകഴിഞ്ഞാൽ അത് വെട്ടിയിട്ടാണെങ്കിലും നമുക്ക് പശുവിന് പുല്ല് കാര്യങ്ങൾ ഒക്കെ കൊടുക്കാൻ പറ്റും നല്ല രീതിയിലുള്ള പുല്ല് കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ തന്നെ പശു നല്ല രീതിയിൽ വേ എന്താണ് പറയുക നല്ല ഒരു നമുക്ക് നല്ലവണ്ണം പരിപാലിക്കാനും എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പട്ടീനെ വളർത്തുവാണെങ്കിൽ അതിനൊരു കൂട് കാര്യങ്ങളൊക്കെ മെയിൻ ആണ് അതിന് ഭക്ഷണം അതിനിപ്പോൾ ചിക്കനും കാര്യങ്ങളും ഒക്കെയായിരിക്കും കൂടുതലായിട്ടും താല്പര്യം അപ്പോൾ അത് എല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കൊടുക്കുവാണെങ്കിൽ പട്ടി നല്ല ആരോഗ്യവാനായിട്ട് വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി